ഓൺലൈൻ ഗെയിമോ ഓഫ്ലൈൻ ഗെയ്മായാലും എനിക്ക് ഇഷ്ടം ബ്രേക്കിങ്ങ് ബലൂൺ ഉണ്ടല്ലോ അതാണ് കാരണം നമ്മുടെ കാലിൽ ഇങ്ങനെ ബലൂൺ കെട്ടും വീർപ്പിച്ച് എന്നിട്ട് കളിക്കളത്തിലോട്ട് ഒരു പത്ത് പതിനഞ്ച് പേരോ അല്ലെങ്കിൽ അഞ്ച് പേർ ആയാലും മതി ഇറങ്ങും അത് മറ്റുള്ളവർ നമ്മുടെ കാലിലോ ബലൂൺ കെട്ടിയേക്കണെ വലത് ഇടത് കാലിലാണ് ബലൂൺ കെട്ടിയിരിക്കുന്നത് അപ്പം ആ ബലൂൺ ചവിട്ടി കളയുക പൊട്ടിച്ച് കളയാണ്ടും നമ്മൾ നോക്കണം അല്ലെങ്കിൽ മറ്റുള്ളവർ വന്നു നമ്മുടെ ബലൂൺ പൊട്ടിച്ചാൽ നമ്മൾ കളിയിൽ നിന്ന് ഔട്ട് ആണ് അപ്പം നമ്മുടെ ബലൂൺ അപ്പോഴും സേഫ് ആയിരിക്കണം അതുന്നുന്നു നമുക്ക് ഒത്തിരി ചിരിക്കാൻ പറ്റും നമുക്ക് ഒത്തിരി റിലാക്സ് ആകാൻ പറ്റും മറ്റുള്ളവർ കാണികൾ കണ്ടു ഒത്തിരി ചിരിക്കും നമ്മൾക്ക് ഭയങ്കര ആവേശം അതൊക്കെ നല്ലൊരു രസമാണ് കളിയിൽ അങ്ങനെ ടൈം പോണതറിയത്തില്ല നമ്മൾ ഒത്തിരി റിലാക്സ് ആവും അതു പോലെ കണ്ട് നിൽക്കുന്നവർ ഒത്തിരി റിലാക്സ് ആവും ഈ കളി കൊള്ളാമല്ലോ എന്നോർത്ത് നമ്മൾ ഓർക്കുകയും ഒത്തിരി നല്ല ഗെയിമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാൻ എപ്പം കളിച്ചാലും ഈ ഒരു ഗെയിം ഞാൻ എൻ്റെ കളിയിൽ കൊണ്ടു വരാറുണ്ട് ബ്രേക്കിങ്ങ് ബലൂൺ എ പറഞ്ഞിട്ട്